ചാകര കിട്ടുകയെന്ന് പറയുന്നതാണ് മത്സ്യബന്ധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മള് ഈ മത്സ്യബന്ധനത്തിനൊക്കെ പോകുമ്പോൾ ഒരു പത്ത് പേര് പന്ത്രണ്ട് പേരടങ്ങുന്ന വലിയൊരു ബോട്ടിലായിരിക്കും കപ്പല് പോലുള്ള വലിയൊരു ബോട്ടിലായിരിക്കും പോവുക അപ്പോൾ മത്സ്യബന്ധന ബോട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഒരു നാലു ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം നമ്മളീ ഇങ്ങനെയാണ് നമ്മുടെ യാത്ര മത്സ്യം കിട്ടി വരണ നമ്മള് പെട്ടന്ന് വരും ഉൽകടലിലോട്ട് പോകും അവടെ പോയി വല എറിഞ്ഞ് മത്സ്യം പെട്ടന്ന് കിട്ടി പറഞ്ഞാൽ നമ്മള് പെട്ടന്ന് വരും ചാകര വരുക ചാകര കിട്ടി പറയുന്നതങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരുപാട് മത്സ്യം ഇപ്പോൾ വലയെറിഞ്ഞാൽ നിറയെ ധാരാളം മീൻ കിട്ടുകയെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് മീൻ കിട്ടിയ കാരണം നമ്മള് തിരിച്ച് വരും അതേപോലെ എന്താണ് മൂന്ന് നാലു ദിവസം നമ്മള് ഒരു കുടുംബം പോലെ ഫുഡ് ഐറ്റംസൊക്കെ വെച്ച് താമസിച്ച് നമ്മളവിടെ കടലില് യാത്ര ചെയ്യുകയാണ് അപ്പോൾ സേഫായി കാറ്റിൻ്റെ ദിശയൊക്കെ മനസ്സിലാക്കി സേഫായിട്ട് തിരിച്ച് വരുകയെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് നിറയെ മീനെ കിട്ടി പറഞ്ഞാൽ തിരിച്ച് വരും ഇതാണ് നമ്മുടെ വിജയകരമായിട്ട് തിരിച്ച് വരുകയെന്നുള്ള ഫസ്റ്റ് പടി പിന്നെ നമ്മള് മത്സ്യബന്ധനത്തിന് നമുക്ക് എല്ലാവർക്കും നല്ല ഊർജ്ജം വേണം അല്ലാ എല്ലാവരും ഇടക്കിടക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മള് ഒത്ത് പിടിച്ചാൽ ഐലേസാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അതിനായിട്ട് ഉള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ എല്ലാവർക്കും അതിനനുസരിച്ചുള്ള എനർജിയൊക്കെ വരും എല്ലാവരും നല്ല ആക്റ്റീവാകും അങ്ങനെയുള്ള ഒരു മത്സ്യ ബന്ധനമാണ് അത് ഞാനൊന്ന് ആഘോഷിക്കാറുണ്ട് നമ്മളത് വന്ന് കഴിഞ്ഞാൽ മത്സ്യ ബന്ധനം ചാകരയൊക്കെ കിട്ടി വന്നാൽ നല്ല അടിപൊളിയായി ആഘോഷിക്കാറൊക്കെയുണ്ട്